കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ട് ഹിന്ദു മതവിശ്വാസികൾ കൃസ്ത്യൻ മതവിശ്വാസികൾ മുസ്ലിം മതവിശ്വാസികൾ എന്നീ തരത്തിൽ മൂന്നു തരം ആചാരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ പൊതുവേ പറയുകയാണെങ്കിൽ വളരെയധികം സഹകരണത്തിലും സ്നേഹത്തിലും സഹിഷ്ണത മനോഭാവത്തിലും പരസ്പര ബഹുമാനത്തിലും എല്ലാം കഴിയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മിക്കവാറും സ്ഥലങ്ങളിൽ ഈ മൂന്നുകൂട്ടരുടെയും ദേവാലയങ്ങൾ അടുത്തടുത്തിരിക്കുന്നതു കാണാനും അവരുടെ പ്രത്യേക തിരുനാളുകൾ വരുമ്പം അല്ലെങ്കിൽ അമ്പലത്തിലൊരു ഉത്സവം വരുമ്പം അല്ലെങ്കിൽ മുസ്ലീങ്ങളുടെ ഒരു പ്രത്യേക വിശേഷ ദിവസം വരുമ്പം ഈ മത സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒന്നുചേർന്നുകൊണ്ടുള്ള സംവാദങ്ങളും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതും പാവങ്ങൾക്ക് അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നതു വളരെ ഒരു പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് എന്നിരുന്നാലും ചില ജാതീയമായിട്ടു നാം തിരിച്ച് ഇത് വേർപ്പെടുത്തി കാണുകയാണെങ്കിൽ ആ വഴിക്കു ചില ഇതിൽനിന്നും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കാണാറുണ്ട് അതുകൊണ്ടുതന്നെയാണ് ചില സാഹചര്യങ്ങളിൽ സംഘർഷം നിലനിൽക്കുന്നതും അല്ലെങ്കിൽ ചില ആ ഒരു സ്നേഹത്തിനു കുറവുകാണുന്നതും അല്ലെങ്കിൽ സഹിഷ്ണതയില്ലാത്തവസ്ഥ കാണുന്നതും പൊതുവേ വളരെ സ്നേഹത്തിലും സഹകരണത്തിലും ബഹുമാനപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു മതവിഭാഗങ്ങളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്